എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് കാരണം വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അല്ലെങ്കിൽ സ്വന്തം അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ലോകത്ത് വേറെ ഏതിനും കിട്ടില്ല വേറെ എത്ര വലിയ ഭക്ഷണം ഉണ്ടെങ്കിലും അതിന് ഒന്നും കിട്ടില്ല നമ്മുടെ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനുള്ള രുചി ആ രുചി വേറെവിടെയും കിട്ടില്ല ഉണ്ടാകാം പല പല ഭക്ഷണവും ഉണ്ടാകാം പല ടേസ്റ്റിലുള്ള ഫുഡ് ഉണ്ടാകാം പക്ഷെ സ്വന്തം അമ്മേടേന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ഒരു രുചി അത് ഒരിക്കലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു രുചി തന്നെയാണ് അതുകൊണ്ട് ഞാനെൻ്റെ അഭിപ്രായം പറയുന്നത് എപ്പോഴും വീട്ടിലത്തെ ഭക്ഷണം തന്നെയാണ് പ്രത്യേകിച്ച് പഴഞ്ചോറ് അതായത് വെള്ളചോർ തൈരും കൂട്ടി കഴിക്കാനാണ് ഭയങ്കരിഷ്ടം അതിന് പുറത്തു പോകുമ്പോൾ എപ്പോഴും ഇപ് എപ്പോഴും ഞാൻ പറയുന്നത് വെള്ളച്ചോറുണ്ടോ എന്നാണ് ചോദിക്കുകയുള്ളൂ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഓഫിസിലേക്ക് പോകാനും മുൻപ് ഞാനെപ്പോഴും പറയുന്ന ഭക്ഷണം എപ്പോഴും വെള്ളച്ചോർ ആണ് ചോദിക്കാറ് കാരണം അതാ അതാണ് അതിൻ്റെയൊരു രുചിയുള്ളത് ആകെ അതാണ് അതുകൊണ്ടെപ്പോഴും വെള്ളച്ചോർ ആണ് കഴിക്കുന്നത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും എപ്പോഴും രുചിയുള്ള ഭക്ഷണം വീട്ടിലത്തെ ഭക്ഷണം സ്വന്തം വീട്ടിലത്തെ ഭക്ഷണം തന്നെയാണ്